എൻ്റെ ഫ്രണ്ട് റെക്കമെന്റു ചെയ്ത് പറഞ്ഞിട്ട് ഞാനൊരു ഹെയർ ഓയില് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ഒരു മാസത്തോളം യൂസ് ചെയ്തു പക്ഷെ റിസൾട്ടൊന്നുല്ല മുടി കൊഴിച്ചിൽ നിന്നില്ല പക്ഷെ മുടി കൊഴി കൂടുതൽ കൊഴിയാൻ തുടങ്ങി പിന്നെ സൈഡ് എഫക്ടസൊക്കെ ഉണ്ടായി സ്കിന്നിന് അലർജി ഒക്കെ വന്നു മുടി പിന്നെ വളരാണ്ടായി അത് ഒരു മാസം യൂസ് ചെയ്തുള്ളൂ പക്ഷെ നിറയെ സൈഡ് എഫക്റ്റ്സ് ഉണ്ടായി അത് ഉപയോഗിച്ചതു കൊണ്ട് ഒരു ഗുണവുമില്ല പ്രത്യേകിച്ച് മാറ്റങ്ങളുമില്ല അപ്പോൾ ആ ഹെയർ ഓയില് ഉപയോഗിക്കാതിരിക്കുകയാണ് കൂടുതലും നല്ലത് അത് ചേരാത്തവർക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാവും അതിനുള്ള ചാൻസുണ്ട് ഒട്ടും യൂസ്ഫുള്ളല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഈ ഹെയർ ഓയില് അപ്പോഴത് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് കൂടുതൽ നല്ലത് സ്കിന്നിൽ അലർജി ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ മുടി വളരാതെ ആവുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ കൂടുന്നുണ്ട് സോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് മാക്സിമം നല്ലത്